ആ ഗൈഡ് ആയിരുന്നു പറഞ്ഞോളൂ ആ അതെ അതെ ഗൈഡ് ആയിരുന്നു ആ ട്രെക്ക് ഇപ്പോൾ ഓപ്പൺ ആണ് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞില്ലേ ഏകദേശം മഴയൊക്കെ തീർന്നിട്ടുണ്ട് നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഓപ്പൺ ആണ് മൂന്നാറിലാണെങ്കിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഓപ്പൺ ആയിട്ടുണ്ട് എല്ലാവരും കൂടെ ആയിട്ടല്ലേ ഓക്കെ കുഴപ്പമൊന്നുമില്ല നമുക്കിപ്പോൾ എന്നാണ് മേഡം വരുന്നത് എന്നാണ് നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് അല്ലേ എത്ര പേരുണ്ടാവും ആ എത്ര പേരുണ്ടാവും ഓക്കെ ഓക്കെ ഏഴ് പേർ അല്ലേ അപ്പോൾ പിന്നെ വണ്ടി എന്തെങ്കിലും വേണോ നമ്മുടെ ഭാഗത്തുനിന്ന് ഓക്കെ ഓക്കെ ആ അല്ല വണ്ടിയും ഡ്രൈവറും ആയിട്ടാണ് നമ്മളൊരു ക്യാബ് റെഡി ആക്കിത്തരാം കുഴപ്പമില്ലല്ലോ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്നോവ പോരേ ഇന്നോവ മതിയല്ലേ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇന്നോ ഓ അത് നം നമ്മുടെയടുത്ത് എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് ആണ് കുഴപ്പമൊന്നുമില്ല ഏയ് ഇല്ലില്ല നമ്മുടെയടുത്ത് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേർസ് ആണ് നമുക്ക് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് എബവ്വ് ഉള്ള ഡ്രൈവേർസ് ആണ് കുഴപ്പമൊന്നുമില്ല ചെറുപ്പക്കാരിപ്പോൾ കുറവാണ് ആ

ഓക്കെ ഓക്കെ റെഡി ആക്കി തരാം ഓക്കെ ഓക്കെ വിളിച്ചാൽ മതി ഈ നമ്പറിലേക്കൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി